ഹലോ ഹലോ എനിക്ക് കുറച്ച് ലോണ് ലോൺ വേണമായിരുന്നു ഗോൾഡിനല്ല എനിക്കൊരു കൃഷി നടത്താനായിരുന്നു ആ അങ്ങനെ ആണെങ്കിൽ ആ അതിനാണ് ഒരു അഞ്ച് പവൻ അഞ്ച് പവൻ ഉണ്ടാവും എമൗണ്ട് എനിക്ക് എത്രയാണ് കിട്ടാന്ന് അറിയില്ല നിങ്ങൾ എത്രയാന്ന് പവൻ വെച്ച് കൊടുക്കാറ്

ഏകദേശം ഇപ്പം ഒരു രണ്ടിനടുത്ത് കിട്ടുമായിരിക്കൂല്ലേ

ആ അതെ അതെ അന്ന് അപ്പം ഫുൾ അല്ലേ ആയിട്ടുള്ളൂ

ആ ആ സ്ഥലം സ്ഥലം കുറച്ചുണ്ടാവും അങ്ങനെ ചെയ്യാം

റെഡി ആയിട്ടില്ല

ആ ഓക്കെ ഓക്കെ ആ ആ ഞാൻ തന്നെ അയക്കും

ഈ ഒരാഴ്ചക്കുള്ളിൽ വേണം